എൻ്റെ വലിയൊരാഗ്രഹം തന്നെയായിരുന്നു തയ്യല് പഠിക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ പോയിടത്ത് അവര് നന്നായിട്ട് തന്നെയാണെല്ലാം പറഞ്ഞുതന്നത് പിന്നെ ഞാൻ അങ്ങനെ ആരെയും പഠിപ്പിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പിന്നെ മോള്ക്ക് ഇടയ്ക്കൊക്കെ അവള് വന്നാല് എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുമ്പഴ്ത്തേക്കും പറഞ്ഞുകൊടുക്കാറുണ്ട് പിന്ന പിന്നെ ഇതിൻ്റെടയ്ക്ക് മറക്കാൻ പറ്റാത്തതെന്ന് പറയണത് നമ്മള് ആദ്യം തച്ച് പഠിക്കുമ്പോള് പലപ്പോഴും ഇത് നോട്ട് വീഴാതിരിക്കുകയും അങ്ങനെയൊക്കെ വരണത് പല പ്രശ്നങ്ങളുമായിരുന്നു പിന്നാ സ്ട്രെയ്റ്റായിട്ട് വരൂല്ല തച്ച് വരൂല്ല ഇങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് പഠിച്ചത് പിന്നവര് കുറേ ട്രിക്കുകളൊക്കെ പറഞ്ഞുതരും അതൊക്കെ വച്ച് നമ്മള് പഠിച്ചെടുത്തോണം പിന്നെ നമുക്കും കൂടെ കുറേ കയ്യില് വേണം നമുക്ക് കൂടെ അത് വരയ്ക്കാനും അത് തയ്ക്കാനുള്ള ഡിസൈനുകളുമൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോലെ ഇരിക്കും നമ്മള് ചെയ്യുന്ന ആ സ്റ്റിച്ചിങ്ങെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഒരു തുണി കിട്ടിക്കഴിഞ്ഞാല് ആദ്യം നമുക്കൊരു ഐഡിയ ഉണ്ടാകണം ആ ഇന്നതൊക്കെ അതില് വേണം എന്നുള്ളത് അതനുസരിച്ച് വേണം നമ്മള് തുന്നാൻ ഇത്രയാണ് എനിക്ക് പറയാനുള്ളു